ആ ഹലോ ഷിബു ഞാന് വിളിച്ചിട്ട് ഓട്ടം വിളിച്ചിട്ട് കുറെ പിന്നെ കുറച്ച് സമയമായല്ലൊ എന്തേ ലേറ്റാകുന്നത് ആ വഴിക്ക് ഗതാഗത കുരുക്കുണ്ടോ അത് ശരി അപ്പം ഇപ്പം എവിടെയാണ് തെങ്ങണായിലോ അപ്പോൾ അവിടുന്ന് ഇവിടെ വരാനൊരു അത്യാവശ്യമാണല്ലോ അവിടുന്ന് ഇവിടെ വരെ വരാൻ എത്ര സമയം എടുക്കുവായിരിക്കും അത് ശരി തെങ്ങണായിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ ഷോർട്ട് കട്ടുണ്ട് പക്ഷേ അത് ഷിബുവിന് ശരിക്കും അറിയത്തില്ലായിരിക്കും അല്ലേ അതായത് അവിടുന്ന് ഇച്ച് കുറച്ച് മുന്നോട്ട് പോന്നിട്ട് അകത്തോട്ട് വരികയാണെങ്കില് വേഗം വരാൻ പറ്റും അപ്പം ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ വേറെ വണ്ടി നോക്കണോ വരുവോ അത് ശരി എന്നാലും ഏകദേശം എന്തേരം സമയം എടുക്കുവായിരിക്കും എനിക്കൊരത്യാവശ്യമായിരുന്നു ഒരാളെ ഹോസ്പിടിലിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോകാൻ വേണ്ടി ആയിരുന്നു ആ ഇച്ചിരി സീരിയസാണ് അപ്പോൾ എത്രയും വേഗം എത്താൻ പറ്റുവായിരിക്കുമോ അത് ശരി എന്നാൽ കഴിയുന്നിടത്തോളം എത്രയും വേഗം എത്തുക